ഞാൻ ഇപ്പോഴും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഗ്രാമത്തിൽ തന്നെ തുടരാനാണ് ഇഷ്ടം കാരണം നഗരവും ഗ്രാമവും തമ്മിൽ അഭേദ്യമായ അജഗജാന്തരം വ്യത്യാസമുണ്ട് നഗരങ്ങളിലാണെങ്കിൽ വളരെ ബഹളവും അച്ചടക്ക ബോധമില്ലായ്മയും വളരെ അധികം ഒച്ചപ്പാടുകളുമൊക്കെ ആയിട്ട് ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരു പ്രദേശമായിരിക്കും നഗരങ്ങൾ എന്നാൽ ഗ്രാമങ്ങൾ അങ്ങനെയല്ല ഗ്രാമങ്ങൾ പണ്ടത്തെ പോലെയുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള പ്രവിശ്യകളും വിശാലമായ പാടങ്ങളും വയലുകളും കന്നുകാലികളും ഒക്കെ ആയി വളരെ സന്തോഷത്തോടെ ആഹ്ളാദിച്ചു താമസിക്കുന്ന ഗ്രാമവാസികളായിരിക്കും ഗ്രാമത്തിലുണ്ടാവുക സ്വാഭാവികമായിട്ടും നഗരങ്ങളിലുള്ളവരെേക്കാൾ കൂടുതൽ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അച്ചടക്കവും വളരെ നല്ല ധാർമിക ബോധവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേ സമയം നഗരങ്ങളിൽ ഇന്നു പല സംസ്കാരങ്ങൾ കൂടിയേറി വന്നതുകൊണ്ടു തന്നെ വിവിധ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും അന്യായമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതു വാസ്തവമാണ് മാത്രമല്ല നമുക്കറിയാം വിവിധ പ്രദേശങ്ങളിൽ നഗരങ്ങളിൽ ആളുകൾ പല ആളുകളെയും വധശ്രമങ്ങൾ നടത്തുന്നതും വധിക്കുകയും അതുപോലെ കൊലപാതകശ്രമങ്ങൾ നടത്തുന്നതുമൊക്കെ നാം പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് കാരണം നഗരങ്ങളിലുള്ളവർക്ക് അവർക്കു മതിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല അവർക്ക് ആധുനിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്നതിനുപരി ധാർമിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല നഗരങ്ങളിൽ ഇന്നത്തെ ഈ യുഗത്തിൽ മോഡേൺ കാലത്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഗ്രാമവാസികളിലാണെങ്കിൽ പണ്ടത്തെ ആളുകളൂടെ ആ ഒരു പാരമ്പര്യ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടുതന്നെ അവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോള് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ കാര്യങ്ങളിലേക്കു മുന്നിട്ടിറങ്ങണം എന്നൊക്കെ അവർക്കു വളരെ സജീവമായിട്ടു മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ടു തന്നെയാണു ഗ്രാമവാസികളെക്കാൾ നഗരവാസികളെക്കാൾ ഗ്രാമവാസത്തിൽ ജീവിക്കുന്നതിനു ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നഗരങ്ങളിലാണെങ്കിൽ നമുക്കതൊരു നരകമായിട്ടു തന്നെ കണക്കാക്കാം കാരണം ആകെ ഒച്ചപ്പാടുകളും ബഹളവും എല്ലാവരും വണ്ടികളുടെയും വാഹനങ്ങളുടെയും ഒക്കെ ഒച്ചപ്പാടുകളും ഹോണുകളുമൊക്കെയായിട്ട് വളരെ മലിനീകരണമായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും നഗരങ്ങൾ എന്നാൽ ഗ്രാമങ്ങൾ അങ്ങനെയല്ല വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ് നമുക്കു ഗ്രാമത്തെ